താങ്കൾക്ക് മറക്കാനാവാത്ത ഒരു യാത്രയെക്കുറിച്ച് വിവരിക്കാമോ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ മറക്കാനാവാത്ത യാത്രയായിരുന്നു ഇടുക്കിയിലെ ഗ്യാപ്പ് റോഡിലൂടെയുള്ള യാത്ര നമ്മുടെ പ്രശസ്ത സഞ്ചാരിയായ സന്തോഷ് ജോർജ്ജ് കുളങ്ങര പോലും പറയുന്നത് ലോകത്തിലെ ഏറ്റവും മനോഹരമായ വഴിയാണ് ഇടുക്കിയിലെ ഗ്യാപ്പ് റോഡ് എന്നാണ് അതിലേ സഞ്ചരിക്കുമ്പോൾ ചെറിയ കോടമഞ്ഞും ചെറിയ മിസ്റ്റും പിന്നെ പ്രകൃതിഭംഗി ഒക്കെ ആസ്വദിച്ച് പോകുമ്പോൾ അത് മാനസികമായിട്ട് ഒരുപാട് സന്തോഷം നൽകുന്ന ഒരിതാണ് പിന്നെ വളരെ മനോഹരമായ റോഡ് നിർമ്മിച്ചിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ വാഹനമൊക്കെ വളരെ സ്മൂത്തായിട്ട് ഓടിച്ചു കൊണ്ടുപോവാൻ സാധിക്കും വാഹനം നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാനും കാഴ്ച്ചകളൊക്കെ ആസ്വദിച്ച് പോകുമ്പോൾ വളരെയധികം സന്തോഷം തന്നെയാണ് പിന്നെ വഴി സൈഡിലൂടെയുള്ള ചായക്കടകളും മറ്റു ചെറിയ ചെറിയ സ്നാക്സ് കിട്ടുന്ന കടകളൊക്കെ നമുക്ക് ഒരു ഒന്നും കൂടി ഉന്മേഷം നൽകുന്ന ഒരു ഇതാണ് ആ ചെറിയ തണുപ്പത്ത് ചെറിയൊരു ചായ കുടിക്കുമ്പോൾ കിട്ടുന്ന ഉന്മേഷം അത് വളരെ വലുതാണ് അത് നമുക്ക് മനസ്സിന് എന്നും ഒരു കുളിർമ്മയായിട്ടും വളരെ അത് ഓർക്കുമ്പോൾ തന്നെ വളരെ സന്തോഷം നൽകുന്ന ഒരു അനുഭമാണ്